ഹലോ ഇത് പ്രിയങ്ക മാമല്ലേ ഞാൻ സ്കൂളിലെ ടീച്ചർ ആണേ ആയുഷിൻ്റെ നിങ്ങളുടെ മോൻ ആയുഷിൻ്റെ ക്ലാസ് ടീച്ചർ ആണ് പിന്നെ ഞാൻ ഒരു വിവരം പറയാൻ വേണ്ടി വിളിച്ചതാണ് അവന് ചെറിയ പനിയുണ്ട് അവന് രാവിലെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ സ്കൂളിൽ വരുമ്പോൾ ആ രാവിലെ ഞാൻ ആ രാവിലെ കുഴപ്പമൊന്നുമുണ്ടായിട്ടില്ല പിന്നെ ഇപ്പോൾ ഉച്ചക്ക്ക ഫുഡ് എല്ലാം കഴിച്ചപ്പോൾ കുറച്ച് ഛർദ്ദിക്കുകയെല്ലാം ചെയ്തു പിന്നെ പനിയും ഉണ്ട് ചൂടുണ്ട് മെയിൻ അതെ അല്ലേ ആ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിടേണ്ടായിരുന്നു കാരണം അവനിപ്പോൾ തീരെ സുഖമില്ലാഞ്ഞിട്ട് കിടക്കുന്നതാണ് ആ നിങ്ങളേത് ഡോക്ടറെയാണ് കാണിക്കുന്നത് നമ്മൾ കൂട്ടിയിട്ട് പോകണോ അല്ലെങ്കിൽ നിങ്ങൾ വന്നിട്ട് കൂട്ടിയിട്ട് പോകുവോ ഡോക്ടറുടെയടുത്ത് കൂട്ടിയിട്ട് പോകുവോ നിങ്ങൾ വരുവോ അപ്പോൾ നിങ്ങളെ ഞാൻ നേരെ ആ നിങ്ങളെ ഞാൻ നേരെ ഇപ്പോൾ മോൻ സ്കൂൾബസിലല്ലേ സ്കൂൾ ബസ് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യണ്ടേ അപ്പോൾ നിങ്ങൾ കൂട്ടാൻ വന്നിട്ടുണ്ടെങ്കിൽ കുട്ടിയേയും കൂട്ടിയിട്ട് പോകാമായിരുന്നു കാരണം പനിക്കുന്ന കുട്ടിയെ വീട്ടിൽ ആ പനിക്കുന്ന കുട്ടിയാവുമ്പോൾ മറ്റുള്ള കുട്ടികൾക്കും പകരുമല്ലോ ആ അതെ അല്ലേ ആ പിന്നെ ഇപ്പോഴത്തെ കാലത്തെ പനിയല്ലേ അപ്പോൾ പകരാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ പിന്നെ നമ്മൾ കൂട്ടിയിട്ട് പോകുന്നതുതന്നെയാണ് നല്ലത് ആ ആ ആ ഛർദ്ദിച്ചിനി അപ്പോൾ നല്ലോണം മാറിയിട്ട് മാത്രം ഇനി സ്കൂളിൽ വിട്ടാൽ മതി ആ അവൻ നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയാണല്ലോ അപ്പോൾ പിന്നെ ലീവായാലും പ്രശ്നമൊന്നുമില്ല അവൻ നല്ലവണ്ണം പഠിക്കുന്നതാണ് അവൻ ക്ലാസ്സിൽ നല്ല ആക്റ്റീവ് ആണ് എല്ലാം നല്ലവണ്ണം ചെയ്യും അതുകൊണ്ട് രണ്ടുദിവസം ലീവായാലും കുഴപ്പമൊന്നുമില്ല നല്ലവണ്ണം പനിയെല്ലാം മാറിയിട്ട് വന്നാൽ മതി നിങ്ങളത് വിചാരിച്ചിട്ട് അല്ല പനി മാറാണ്ട് കുട്ടിയെ പറഞ്ഞുവിടേണ്ട ആ ശരി ശരി ആ ആ ശരി ശരി ആ ആ ആ ശരി ഞാനെന്നാൽ ഞാൻ മോനെയും കൂട്ടിയിട്ട് താഴെ വരാം നിങ്ങൾ എന്നാൽ കുറച്ചുസമയം കഴിഞ്ഞിട്ട് ഇറങ്ങിക്കോ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കോ അതായിരിക്കും വേണ്ടവേണ്ട നിങ്ങൾ വന്നിട്ട് കൂട്ടിക്കോ ശരി ശരി ഓക്കെ എന്നാൽ